പരമ്പരാഗത രൂപമായ പേനയും പേപ്പറും ഉപയോഗിച്ച് എഴുതാനാണോ അതോ ലോപ് ലാപ്ടോപ്പ് മൊബൈൽ ടൈപ്പ് ചെയ്യാനോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എ എനിക്കിഷ്ടം പേപ്പറും പേനയും ഉപയോഗിച്ച് എഴുതാനാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് പേപ്പറും പേനയും ഉപയോഗിച്ച് എഴുതണേക്കാട്ടിൽ ടൈം ഒരുപാട് കുറവ് കിട്ടുന്നത് മ മൊബൈലിലും റ്റാ ലാപ്ടോപ്പിലൊക്കെ ടൈപ്പ് ചെയ്ത് വയ്ക്കുന്നത് തന്നെയാണ് ഈ ഈ എന്താണ് പറയുന്നത് പേനയും പേപ്പറും വെച്ച് എഴുതാനാണ് നമ്മുടെ സ്വന്തം കൈപ്പടയിൽ നമ്മൾ എഴുതുമ്പം അത് നമുക്ക് കിട്ടുന്ന ഒരു എന്താണ് പറയുന്നത് ഒരു നിർവൃതി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പക്ഷേ ലാപ്ടോപ്പിലും മൊബൈലിലൊക്കെ ടൈപ്പ് ചെയ്തിപ്പം ഒരാൾക്ക് സെൻഡ് ചെയ്തുകൊടുക്കാനുള്ള ഒരു സംഭവം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാപ്ടോപ്പിലോ മൊബൈലിലോ അത് ചെയ്തുവെച്ചാലേ പറ്റുള്ളൂ കാരണം നമ്മൾ സ്വന്തം പേനയും പേപ്പറിൽ നമ്മുടെ കൈപ്പട കൊണ്ടെഴുതി അത് ഒരാൾക്ക് ചെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലെറ്റർ ഒക്കെ പോസ്റ്റ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് ഒത്തിരി സമയം എടുക്കും അപ്പം ഇപ്പോഴത്തെ ആധുനിക സം സംവിധാനത്തെ വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് മൊബൈൽ വെച്ച് എഴുതാനാണ് ടൈപ്പ് ചെയ്ത് വേണമെങ്കിൽ പത്ത് മിനിറ്റ് പത്ത് സെക്കൻ്റിനുള്ളിൽ അവർക്ക് ചെല്ലും അത് അപ്പം ഈ ഈ വട്ടം എഴുത്തിലൊക്കെ വന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഇപ്പം എഴുതി വയ്ക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ലാപ്ടോപ്പ് മൊബൈലിലൊക്കെ ചെയ്യാനാണ് ഇപ്പോഴത്തെ ആളുകളെല്ലാം ശ്രമിക്കുന്നത് ഇപ്പം ക്യമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ എന്താണ് ഫോണും ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾ ആരും ഇപ്പം ഈ ഇതിലില്ല ഈ ആധുനിക സംവിധാനത്തിൽ ഇല്ല എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം പേനയും പേപ്പറും ഇപ്പോൾ ഒരുപാട് എഴുതുന്നത് സ്കൂളുകളിലാണ് സ്കൂളുകളിൽ ഉള്ള കുട്ടികൾ മാത്രമാണ് ഇപ്പം പേനയും പേപ്പറും ഉപയോഗിക്കുന്നത് ബാക്കി എല്ലാവരും ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഓഫീസ് വർക്കുകൾ ആയാലും എല്ലാം ഓഫീസ് വർക്കുകളിൽ പേപ്പറും ഉപയോഗിക്കുന്നുണ്ട് ലാപ്ടോപ്പും ഉപയോഗിക്കുന്നുണ്ട് എന്നാലും അവർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് നൽകുന്നത് ലാപ്ടോപ്പ് മൊബൈൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്